പണ്ടത്തെ കാലം വച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തിൽ ഏറ്റവും എന്താണ് വ്യത്യാസം വന്നിട്ടുള്ള ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം തന്നെയാണ് നമുക്ക് പറയാം ലിറ്ററേറ്ററി റേറ്റ് ലിട്രസി റേറ്റ് കൂടുതൽ കേരളത്തിൽ ഉയർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് എങ്കിലും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മാറ്റങ്ങൾ കൊണ്ടു വരേണ്ടതുണ്ട് എന്ന് വച്ചാൽ പഠനത്തിനുപരി മറ്റ് കാര്യങ്ങൾ എന്ന് വച്ചാൽ കോകരിക്കുലർ ആക്റ്റിവിറ്റീസ് ആയിക്കോട്ടെ വിദ്യാർഥികളുടെ ജി കെ നോളജ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ ബാക്കി മറ്റ് അവരുടെ ടാലൻ്റുകൾ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറവ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം അക്കാഡമിക്കൽ ലെവലിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടി ഒരു പക്ഷേ കോകരിക്കുലർ ആക്ടിവിറ്റിസ് അല്ലെങ്കിൽ സ്പോർട്സ് ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാതിരിക്കുകയും അല്ലെങ്കിൽ അതിനോട് കുട്ടിക്ക് അറിവുകൾ കുറഞ്ഞ് വരികയും അങ്ങനെ ജി കെ നോളജിനോട് കുറവ് വരികയും അതൊക്കെയാണ് നമുക്ക് അപ്പോൾ എല്ലാം എന്ന് വച്ചാൽ ആർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റഡീസായിക്കോട്ടെ സ്പോർട്സായിക്കോട്ടെ എല്ലാം ഒരു പോലെ മുന്നോട്ട് കൊണ്ട് പോവാനും ആ ഒരു വിദ്യാഭ്യസരംഗത്തിന് കഴിയണം പിന്നെ നമ്മൾ കണ്ടു വരുന്ന സഹകരണക്കുറവും ഏകോപന കുറവുമൊക്കെ എന്ന് വച്ചാൽ ഇപ്പോൾ മുൻ ജാതികൾ എന്നു വച്ചാൽ ഉയർന്ന ജാതികൾ താഴ്ന്ന ജാതികൾ അല്ലെങ്കിൽ ജനൽ കാറ്റഗറീസ് പൈസക്കാരുടെ കുട്ടികൾ പാവപ്പെട്ടവരുടെ കുട്ടികൾ ഇങ്ങനെ ആ ഒരു കാറ്റഗറിയിലെ നമ്മൾ പറയും ഇപ്പോൾ ഭയങ്കര ഐക്യമാണ് കുട്ടികൾ തമ്മിൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ വലിയ എന്താണ് പറയുക ജൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് വച്ചാൽ അതൊന്നും ഇല്ല എല്ലാവരും ഒരേ പോലെ ഇക്വാളിലിറ്റിയിൽ പോകുന്ന ആൾക്കാരാണെന്ന് ഒക്കെ പറയുമെങ്കിലും കൂടി അതും ഏറ്റവും കൂടുതൽ കുട്ടികളെന്ന് വച്ചാൽ ഇപ്പം ആദിവാസി സ്റ്റുഡൻസായിക്കോട്ടെ മറ്റ് വിദ്യാർഥികൾ ആയിക്കോട്ടെ അവർ താഴ്ന്ന കുട്ടികളെ ഭയങ്കരമായിട്ട് നിന്ദിക്കുകയും അവരെ ഭയങ്കര താഴ്ത്തി കെട്ടുകയും അവരെ ഭയങ്കരമായിട്ട് കഷ്ട്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലുണ്ടാവുന്ന റാഗിങ്ങ് അതൊക്കെ വളരെ കൂടുതൽ കാണാനിപ്പോൾ നമുക്കറിയാം പിന്നെ എന്താണ് പുറം ലോകത്ത് ലോകത്തോട്ട് വരുന്നില്ലെങ്കിലും ഇത് നേരിടുന്ന കുറേ വിദ്യാർഥികളും കുറേ ആൾക്കാരും ഇപ്പോഴുമുണ്ട് ഇപ്പം രക്ഷിതാക്കളുടെ കാര്യം പറയുകയുക ആണെന്നുണ്ടെങ്കിൽ കുറേ രക്ഷിതാക്കൾ തമ്മിൽ എന്ന് വച്ചാൽ രക്ഷിതാക്കൾ തമ്മിൽ ആ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ തമ്മിലും ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുപോലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക പണ്ടത്തെ കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾഎന്ത് കാര്യങ്ങൾ നടക്കുന്നോ ഇപ്പോഴത്തെ കണ്ട് പിടുത്തങ്ങൾ എന്താണെന്ന് വച്ചാൽ കറൻ്റ് കാര്യങ്ങളും കൂടി കൊണ്ട് മുന്നോട്ട് പോകുവാനും പഠിക്കുവാനും ഒരു വിദ്യാഭ്യാസ രംഗത്തിന് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു